എല്ലാ പ്രദേശത്തും ആ പ്രദേശത്തിന്റേതായിട്ടുള്ള പരമ്പരാഗതമായ കളികളുണ്ട് എൻ്റെ പ്രദേശത്ത് പ്രധാനമായിട്ടും ഉള്ള കളികളെന്ന് പറയുന്നത് പന്ത് കളി കുട്ടിയും കോലും സാറ്റ് പാണ്ടിക്കളി കുളംകര തലപ്പന്ത് കളി മുതലായവയാണ് അതിൽ ഇപ്പം ഇപ്പോൾ ആരും അധികം അങ്ങനത്തെ പരമ്പരാഗത കളികളൊന്നും കളിക്കാറില്ല പ്രധാനമായിട്ടും അവർ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് അതിൽ ഗെയിം ഒക്കെ കളിച്ചാണിരിക്കുന്നത് പൊതുവേ ഇങ്ങനെയൊക്കെയുള്ള പരമ്പരാഗത കളികളെല്ലാം തന്നെ ഇപ്പോൾ അന്യം നിന്ന് വരികയാണ് പല കുട്ടികൾക്കും ഇപ്പോൾ ഇങ്ങനത്തെ കളികളുണ്ട് പേര് പോലും കേട്ടില്ലാത്ത കുട്ടികൾ വരെ ഉണ്ട് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും സാധാരണയായിട്ട് അറിയാറില്ല കുട്ടിയും കോലും പാണ്ടി കളിയൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അന്യം നിന്നു സാറ്റ് പിന്നെയും കുട്ടികൾ കളിക്കാറുണ്ട് പിന്നെ കുട്ടിയും കോലും കളിക്കുകയെന്ന് വെച്ചാൽ രണ്ട് കമ്പുകളാണെടുക്കുന്നത് ഒരു ഒരു കമ്പ് വലിയ കമ്പും ഒന്ന് ഇത്തിരി ചെറിയ കമ്പുമായിരിക്കും വലിയ കമ്പ് ഉപയോഗിച്ച് ചെറിയ കമ്പിനെ തട്ടി ദൂരേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കളിക്കുന്നത് അപ്പം അതിൽ ഏ ഒരുപാട് പേർ കളിക്കാനുണ്ടായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ആ കമ്പ് തട്ടിയിടുന്ന ആളായിരിക്കും വിജയി പാണ്ടി കളി കുളംകര കളി മുതലായവയും കളിക്കാറുണ്ട് കുളംകര കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ വട്ടം വരയ്ക്കും വട്ടത്തെ നമ്മൾ ഒരു കുളമായിട്ട് കണക്കാക്കും പുറത്ത് അതിന് പുറത്തുള്ള ഭാഗം കരയായിട്ടും കണക്കാക്കും കുട്ടികൾ ആവശ്യമുള്ളവർ കളിക്കുന്നവർ എല്ലാവരും കൂടി ആ വട്ടത്തിന് ചുറ്റും നിൽക്കുകയും ഒരാൾ കുളം കര എന്ന് പറയും കുളം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് കുളത്തിൽ ചാടണം കര എന്ന് പറയുമ്പോൾ തിരിച്ച് ചാടുകയും ചെയ്യണം അത് പറയുന്നതിന് വിപരീതമായിട്ട് ചെയ്യുന്നവർ ആ കളിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്ന രീതിയിലാണ് ആ കളി കളിക്കുന്നത് പിന്നെ ഉള്ളത് പാണ്ടി കളിയാണ് സാധാരണ പെൺകുട്ടികളാണ് ഈ കളി കളിക്കുന്നത് നമ്മുടെ തറയിൽ കുറച്ച് ചതുരത്തിലുള്ള കോളം വരച്ച് ഒരു കല്ല് ഉപയോഗിച്ച് അതിനെ പാണ്ടി എന്നാണ് പറയുന്നത് ആ കല്ല് ഉപയോഗിച്ചാണ് കളിക്കുന്നത് പിന്നെ തലപ്പന്ത് കളി അല്ലാത്ത പന്ത് കളിയും സാധാരണ ആളുകൾ കളിക്കാറുണ്ട് പിന്നെ സാറ്റ് സാറ്റ് അധികം അന്യം നിന്ന് പോയിട്ടില്ലാത്ത ഒരു കളിയാണെന്ന് പറയാം ഇപ്പോഴും കുട്ടികൾ കളിച്ചുകൊണ്ടിരികുന്ന ഒരു കളിയാണ് സാറ്റ് സാറ്റ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാവുന്ന ഒരു ആ കളിയാണ് ഒരാൾ കണ്ണ് പൊത്തി നിന്ന് എണ്ണും ബാക്കിയുള്ളവർ ഒളിക്കുകയാണ് ചെയ്യുന്നത് ആൾ എണ്ണി തീർന്നിട്ട് മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ആരെയാണോ ആദ്യം കാണുന്നത് ആ ആ മറ്റുള്ളവരാരും ഈ എണ്ണുന്ന ആളല്ലാതെ മറ്റുള്ളവർ എലാവരേയും കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം കണ്ട ആൾ വീണ്ടും എണ്ണണം ഇങ്ങനെ കളി തുടർന്ന് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ധാരാളം പരമ്പരാഗത കളികളുണ്ടെങ്കിലും ഇന്നിവയെല്ലാം അന്യം നിന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം ആരും ഈ കളികളൊന്നും ഇപ്പോൾ കളിക്കാറില്ല പ്രധാനമായിട്ടും എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗെയിം കളിക്കാനാണ് ശ്രമിക്കുന്നത്